ഗ്രാമീണ കൃഷിയിൽ പ്രാപ്തരായ തൊഴിലാളികളെ കണ്ടെത്താനും അവരെ നിലനിർത്താനുമുള്ള വെല്ലുവിളികളെപ്പറ്റി സംസാരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളെപ്പറ്റി ആദ്യം പറയാം അതായത് ഇന്ന് കൃഷി ചെയ്യുന്നതാരാണ് അതുപോലെ ഇന്ന് കൃഷി ഇന്ന് യുവതലമുറ എന്തുകൊണ്ട് കൃഷിയിൽ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞുതുടങ്ങാം ഇന്ന് ഇന്ന് ഇന്നുള്ള യുവതലമുറ അധികമായി ഡോക്ടറാകാനും വക്കീലാകാനും മറ്റുമാണ് ശ്രമിക്കുന്നത് ഡോക്ടറാകാനും വക്കീലാകാനും എഞ്ചിനീയറാകാനുമെല്ലാം ശ്രമിക്കുമ്പോൾ അതായത് അവർ കൃഷിയെന്ന അവരുടെ നിലനിൽപ്പിനാവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഇവിടെയുള്ള മുതിർന്ന തലമുറയാണ് അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വാർധക്യത്തിൻ്റെ ഒരറ്റത്തിൽ എത്തിനിൽക്കുന്ന വയസ്സുള്ള സമൂഹമാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത് ഇന്ന് ഇന്ന് വളർന്നുവരുന്ന യുവതലമുറ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ ഇന്നുള്ള യുവതലമുറം വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ വൃദ്ധർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന തലമുറയാണ് മനുഷ്യജീവിതത്തിന് ആവശ്യമായ മറ്റു വിളകളും മറ്റും തൊഴിൽ മീൻസ് കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെടുന്നത് അപ്പോൾ ഇന്നുള്ള യുവതലമുറ മറ്റ് ജോലികൾക്കെല്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് മറ്റ് പല ജോലികളിലേക്ക് അവർ ശ്രദ്ധതിരിക്കുമ്പോൾ എന്തുകൊണ്ടവർ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പല വസ്തുതകളും അവരെ കൃഷിയില് നിന്നും മാറ്റിനിർത്തുന്നുണ്ട് ഒന്ന് കൃഷിക്ക് ലഭിക്കുന്ന വേതനം എത്രയാണ് മറ്റു ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണ് അല്ലേ മറ്റ് ജോലികൾക്ക് അമിതമായ അതായത് അവർക്ക് ആവശ്യത്തിലധികം ശമ്പളം ലഭിക്കുമ്പോൾ കൃഷിക്ക് അവർക്ക് ഒരു ദിവസം അവർക്ക് നിലനിന്നുപോകാന് ആവശ്യമായ അത്രതന്നെ ശമ്പളം കിട്ടാതെ വരികയും ചെയ്യുന്നു ഇതാണ് ഒന്നാമത്തെ ഘടകം കൃഷിയില് നിന്നും വളർന്നുവരുന്ന തലമുറയെ മാറ്റാനുള്ള ഒന്നാമത്തെ ഘടകം ഇതാണ് അതുപോലെ ഇവിടെയുള്ള വെല്ലുവിളികളെയാണ് അതായത് കൃഷിയിലേക്ക് ഒരാൾ കർഷകനാകാന് അല്ലെങ്കിൽ കർഷകരെ നോക്കുന്നൊരു ഒരു സംഘടന രൂപപ്പെടുത്താമെന്ന് ഒരാൾ ചിന്തിക്കുമ്പോള് അവർ അയാൾക്ക് നേരിടുന്ന വെല്ലുവിളികളാണ് മോശമായ റോഡ് അതായത് ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് ആളുകൾക്കെത്താൻ ഒരുപാട് വെല്ലുവിളികളുണ്ട് മോശമായ റോഡ് അതുപോലെ ഈ സാധനങ്ങൾ വിറ്റാല് കിട്ടുന്ന ലാഭം ഇങ്ങനെയെല്ലാം ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ അയാൾ തലയിൽ എടുത്തുവെയ്ക്കുന്നതിലും നല്ലത് അയാൾ മറ്റ് ജോലികൾ ചെയ്യുന്നതാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് യുവസമൂഹം എത്തിയിരിക്കുന്നു അതുപോലെ ഇന്ന് കാർഷികരംഗത്ത് നേരിടുന്നൊരു മറ്റൊരു വെല്ലുവിളിയെ പറ്റി സംസാരിക്കാം അത് ഇന്ന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു കൃഷി ചെയ്യുന്നധികവും വൃദ്ധർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന സമുദായമാണ് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് അവർക്ക് പുതിയ ടെക്നോളജികൾ കൃഷിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു അതും കാർഷിക കാർഷിക രംഗത്ത് നേരിടുന്നൊരു വെല്ലുവിളിയാണ്